നമ്മുടെ സ്ഥലം എന്നു വെച്ചാൽ ഒത്തിരി പുരോഗിമിച്ചിട്ടില്ല പുരോഗിമിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് അതിൻറെ അകത്ത് നമ്മുടെ ഇവിടെ എന്നു വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ് പ ഏത് നെറ്റ്വർക്ക് എടുത്താലും അതിൻറെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ പല സമയങ്ങളിലും ഉണ്ടാകാറുണ്ട് റേഞ്ചിൻ്റെ പ്രശ്നം അതെ നെറ്റ് മൊബൈൽ ഡാറ്റയിൽ ആണെങ്കിലും കോൾ ചെയ്യുന്നതിലാണെങ്കിലും അങ്ങനെയുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും കോൾ വിളിച്ചാൽ ബ്രേക്ക് ആയിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലത് കൃത്യമായി ലോഡ് ആവാതെ ഇരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ അത് സെൻഡ് ആവാതെ ഇരിക്കുക തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഡൗൺലോഡ് ആകാൻ വളരെയധികം താമസിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയൊരു മഴ പെയ്താൽ അപ്പോൾ തന്നെ കറണ്ട് പോകുന്നു ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ടുതന്നെ ഈ പടിഞ്ഞാറൻ റൂട്ടിലുള്ള ലൈൻ കമ്പി ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ഒക്കെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നത് കാരണം തന്നെ പല ദിവസങ്ങളിലും കറണ്ട് ഇല്ല അതുകൊണ്ടുതന്നെ വൈഫൈയുടെ കണക്ഷൻ കട്ട് ആയി പോവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പരിഗണി പരിഹരിക്കാനായിട്ടുള്ളത് മെയിൻ ആയിട്ട് പുറത്തേ ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ നോർമ ലോക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും അതിൻറെ അകത്തുണ്ട് ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും അടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഒരേ സ്ഥലങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അത് മുൻകൂട്ടി നേരത്തെ പറയാൻ സാധിച്ചാൽ അതൊക്കെ നല്ലതാണ് അതിൻറെ അകത്ത് ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓരോരോ ദാതാക്കൾ അത് നോക്കേണ്ടത് തന്നെയാണ് അത് പലപ്പോഴും മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പോർട്ടിങ്ങ് സമ്പ്രദായങ്ങളൊക്കെ വരുന്നതുകൊണ്ടുതന്നെ നന്നായിട്ട് ചെയ്യാറുണ്ടെങ്കിലും പലപ്പോഴും അത് ഉണ്ടാകാറില്ല ഞാൻ തന്നെ ഒരു ദാതാവിനോട് പലപ്രാവശ്യം നമ്മൾ കംപ്ലയിൻറ് ചെയ്താൽ പോലും അത് കൃത്യമായിട്ട് അത് പരിഹരിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒന്നും ആകുന്നില്ല നമ്മൾ പിന്നെ പോർട്ട് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് കൊടുക്കമ്പോഴാണ് വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുംകൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാകാം ശരിയാക്കാം എന്നുള്ളതൊക്കെ വരുന്നത് ആ സമയത്താണ്